ഞങ്ങൾക്ക് ഈയിടെ ഒരു മത്സരം ഉണ്ടായിരുന്നു അപ്പം സ്റ്റേജിൽ അവതരിപ്പിക്കേണ്ട ഒരു പാട്ട് പാടേണ്ട ആവശ്യമുണ്ടായിരുന്നു മത്സരമായിരുന്നു അപ്പോൾ ഞങ്ങൾ പാടാനായിട്ട് സ്റ്റേജിൽ കയറി പക്ഷേ പാടി ഞങ്ങൾ നന്നായിട്ടാണ് പാടിയത് പക്ഷെ ഞങ്ങളുടെ എതിർ ടീമിലെ അംഗ മെമ്പേർസ് അതിനെ കളിയാക്കുകയും കൂക്കി വിളിക്കുകയും ഒക്കെ ചെയ്തു അത് ഞങ്ങൾക്ക് ഒത്തിരി ബുദ്ധിമുട്ട് തോന്നി എങ്കിൽ പോലും ഞാൻ സ്റ്റേജിൽ നന്നായിട്ട് തന്നെ അത് മുന്നോട്ട് പോയി

ഇവർ ഇങ്ങനെ കളിയാക്കുന്നത് കണ്ടപ്പോഴത്തേനും പാടിൻ്റെ പാട്ടിൻ്റെ വരികൾ നമ്മൾ മറന്നുപോവുകയും പക്ഷെ അത് നമ്മൾ വീണ്ടും അത് നമ്മുടെ ദൈവത്തോട് അർപ്പിച്ചുകൊണ്ട് നമ്മൾ മ മറന്നുപോയ വരികൾ വീണ്ടും ഓർ ഓർത്ത് കുഴപ്പമില്ലാതെ നന്നായിട്ട് സ്റ്റേജിൽ അവതരിപ്പിച്ച് പോയി അത് നമുക്കും മറക്കാനാവാത്ത ഒരു അനുഭവമായി പോയി പക്ഷേ എങ്കിലും അത്രയും പ്രശ്നങ്ങൾ നേരിട്ടിട്ട് പോലും ഞങ്ങൾക്ക് ഒന്നാം സ്ഥാനത്ത് എത്താൻ സാധിച്ചു അതിനകത്ത് വളരെ സന്തോഷം ഉണ്ട് അത് ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു അനുഭവം ആയിപ്പോയി പിന്നെ പാട്ട് പാടുമ്പോഴത്തേനും സ്റ്റേജിൽ കയറിയപ്പോൾ തന്നെ അവർ ഞങ്ങളെ കളിയാക്കാനാണ് തുടങ്ങിയത് ഞങ്ങൾ മറന്നുപോകുമോ എന്നുള്ള ഒരു ഭയമായിരുന്നു പക്ഷേ എങ്കിലും അത് കംപ്ലീറ്റ് ആക്കാനും സമ്മാനം മേടിക്കാനും പറ്റിയതിന് സർവേശ്വരനോട് നന്ദി പറയുന്നു അത് ജീവിതത്തിൽ എന്നും അത് ഓർക്കുന്നൊരു അനുഭവമാണ് ഇതുവരെ ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെയൊരു അനുഭവം ഉണ്ടായിട്ടില്ല നമ്മൾ സ്റ്റേജിൽ കയറിയിട്ട് ആരും നമ്മളെ അവഹേളിക്കുന്നൊരു അനുഭവം ഉണ്ടാകാത്തൊരു ഉണ്ടാകാതെയാണ് ഇരുന്നത് എന്തുകൊണ്ടോ അവർക്ക് അങ്ങനെ നമ്മളെ കളിയാക്കണം എന്ന് തോന്നി ഞങ്ങളെ തന്നെ അല്ല വേറെ ആൾക്കാരെയും കളിയാക്കി പക്ഷേ എങ്കിലും ഞങ്ങൾ കയറിയ സ്റ്റേജിനകത്താണ് അവർ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് പ്രോഗ്രാം തല്ലിപ്പൊളി ആക്കണം എന്നുള്ളൊരു മനോ ഇതോടുകൂടിയാണ് ആ ടീം അന്ന് വന്നത് പക്ഷേ എങ്കിലും ഞങ്ങളുടെ ടീം തന്നെ ജയിച്ചു